ഹലൊ ഇത് ശ് ഷൈമാസ്റ്റ് ആണോ അ ഓക്കെ ഞാനെ അവിടുന്ന് കഴിഞ്ഞദിവസം ഒരു കുര്ത്തിയും ചു ചുരിദാറൊക്കെ കൂടെ വാങ്ങിച്ചായിരുന്ന് കേട്ടൊ അത് നല്ലതായിരുന്നു അടിപൊളി കു സാധനം ആയിരുന്നു ഇനി അതേപോലെ ഉള്ള ഇത്കള് വരുവാണെങ്കില് ഞങ്ങളെ ഒന്ന് അറിയിക്കണം കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപെട്ടു അതിന്റെ കളറും അതിന്റെ ആ സ്റ്റെഫും തുണിയും എല്ലാം നല്ല ഭംഗി ആയിരുന്നു ഇട്ടിട്ടു എല്ലാവര്ക്കും ഇഷ്ടപ്പെട്ട് അത് ഇട്ടുകൊണ്ട് വന്നിട്ട് എല്ലാവരും ഒരുപാട് പേര് ഞങ്ങളോടതഭിപ്രായം ചോദിച്ചു എങ്ങനെ ഉണ്ടായിരു നല്ല ഭംഗി ഉണ്ട് നല്ല ഭംഗി ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞ് അതുകൊണ്ട് ഇനി അതുപോലെ ഉള്ള എന്തെങ്കിലുവൊക്കെ വരുവാണെങ്കില് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ ഓക്കെ ടാങ്ക്യു